അ ന്യൂഫോം റെസ്റ്റൊറൻറ്റ് അല്ലെ ആ ഓക്കെ അപ്പോൾ ഞാനേ എന്താ പറയുക എൻ്റെ വീട്ടില് കല്യാണാവശ്യത്തിന് വേണ്ടീട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ അപ്പം മധുരപലഹാരങ്ങള് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമോ സ്വീറ്റ് ആ സേർവ് ചെയ്യാൻ വേണ്ടീട്ട് ഇവർക്ക് തന്നെ ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമായിരുന്നു പറഞ്ഞിട്ടിണ്ടായിരുന്നെ ആ ആയിരത്തഞ്ഞൂറ് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡോ അല്ലെങ്കില് അല്ലാത്ത വേറെ എന്തെങ്കിലും കേസരിയോ അ നിങ്ങളുടെ ഓഫറിലുള്ളത് ഏതൊക്കെയാ ഉള്ളത് ഫുഡ് ആ ഷുഗർ ഐറ്റംസ് ആ പേട ആ പേട ഒക്കെ ഉണ്ടല്ലേ അടുത്തുള്ള എല്ലാ റെസ്റ്റൊറൻറ്റിലും ഇത് സെയിമാണോ റേറ്റ് വരുന്നത് ഇപ്പോൾ ദീപാവലീൻ്റെ ഓഫർ സെയിം ആണല്ലേ ആ അപ്പം ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള സ്വീറ്റ് വേണം ആ ഓക്കെ